ഹലോ ഞാൻ ഷീനയാണെ വിളിയ്ക്കുന്നത് ഞാനൊരു ഒരു ഒന്നൊന്നര മണിക്കൂർ മുന്നേ ഒരോട്ടൊ ബുക്ക് ചെയ്തിട്ടുണ്ടാരുന്നു എനിയ്ക്കൊന്ന് ടൗണിൽ പോകാൻ വേണ്ടീട്ട് എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയ്ക്കാൻ ഉള്ളതാണ് ഇത് എത്ര സമയായിട്ട് നിങ്ങളെടുത്ത് സംസാരിയ്ക്കുമ്പം നിങ്ങൾ ഇതാ ഇപ്പം വരും ഇപ്പം വരും അവിടെത്തി എനിയ്ക്ക് കണ്ണൂരിൽ എത്തണ്ടതാ നേരത്തെ വിളിച്ചപ്പഴേ അരമണിക്കൂറിൽ വിളിച്ചപ്പഴേ നിങ്ങൾ പറഞ്ഞു ഞാൻ ചാലയ്ക്കെത്തീന്നകെ ചാലത്ത്ന്ന് ആകെ ഒരു കാ മണിക്കൂറ് കൊണ്ട് എൻ്റെ വീട്ടിലേയ്ക്കെത്താൻ പറ്റും എന്നിട്ടും നിങ്ങളെന്താ ഇങ്ങനെ വൈകുന്നത് നിങ്ങൾക്ക് പറ്റൂല്ലെങ്കിൽ നിങ്ങൾ വേറെ ആരേങ്കിലും വിടണ്ടെ നമ്മളൊരു കറക്റ്റ് സമയത്തിന് പോവാൻ വേണ്ടീട്ടല്ലെ നിങ്ങളെ വിളിച്ചിട്ട് ബുക്ക് ചെയ്തിട്ട് വേഗം പോവാ വേഗം സാധനങ്ങളക്കെ വാങ്ങിച്ച് വരാമെന്നുള്ള ഒരിതിലല്ലെ നിങ്ങൾക്ക് പറ്റില്ലാങ്കിൽ നിങ്ങൾക്ക്പറ്റില്ലാന്ന് അപ്പം പറയണമായിരുന്നു ഇപ്പം കറക്റ്റ് ആയിട്ട് നിങ്ങളെവ്ടെയാള്ളത് സത്യമായിട്ട് തന്നെ പറ ചേട്ട കാരണം അല്ലെങ്കിൽ പിന്നെ എനിയ്ക്കും വെരുതെ ലേയ്റ്റ് ആവും എനിയ്ക്കല്ലങ്കിൽ വേറെ വണ്ടി എടുത്തിട്ടോ മറ്റോ പോവുല്ലോ ഓരോ പ്രാവിശ്യം വിളിയ്ക്കുമ്പം നിങ്ങളെന്തിനാ അവിടെയാന്ന് ഇവിടെയാന്ന് പറയുന്നത് എവ്ടെയാ ഉളെളന്ന് എക്സറ്റ് പറഞ്ഞ് കഴിഞ്ഞാൽ എനയ്ക്കയിന്സരിച്ചിട്ട് നിൽക്കാം അയാത് റോഡിൽ ഒരു എന്താ പറയണ്ടെ ഒരു മണിക്കൂറായിട്ടിങ്ങനെ നിൽക്കണ്ടെ നിങ്ങളിപ്പം വരും ഇപ്പം വരും എന്ന് എപ്പോൾ ചോദിയ്ക്കുമ്പോളും അതാ പറയുക അങ്ങനെ പാടില്ലല്ലോ നിങ്ങൾക്ക് പറ്റില്ലേ നിങ്ങൾ പറ്റില്ലാന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എനിയ്ക്ക് വേറെ വണ്ടി നോക്കാം എന്നാലും നിങ്ങളിപ്പഴെങ്കിലു ദയവായിട്ട് ഇനിയെങ്കിലും പറയു നിങ്ങൾ കറക്റ്റ് ആയിട്ട് എവിടെയാണ് ഉള്ളതെന്നൊന്ന് പറയു ശരിക്കും